ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത് ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന്